നമ്മുടെ പ്രധാന വാർത്താമാധ്യമമായ നമ്മുടെ ഈ പത്രങ്ങൾ ന്യൂസ്പേപ്പറുകൾ സ്വാഭാവികമായിട്ട് അകത്ത് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചെടുത്തോളം വളരെ ആകർഷതയുള്ള ഒന്നാണ് നമുക്കറിയാം ഇവിടെ നമ്മുടെ ജീവിതരീതിയിൽ അത്യന്താപേക്ഷിതമായി നിലനിൽക്കുന്ന ഒരു കീഴ്വഴക്കം തന്നെയാണ് പത്രവായന നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഇതുപോലെതന്നെ പല തരത്തിലുള്ള പേപ്പറുകളും വളരെ പ്രബലമായ മനോരമ മാതൃഭൂമി തുടങ്ങിയുള്ള ദീപിക തുടങ്ങിയുള്ള പേപ്പറുകൾ മിക്ക ഭവനങ്ങളിൽ വരുത്തുകയും ഇന്നും ഈ ആധുനികമായ വാർത്താമാധ്യമങ്ങൾ നൽകുന്ന മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽപോലും പത്ര പാരായണം ഇന്നും ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു സ്വീകാര്യത ഇന്നും നിലനിൽക്കുന്നതാണ് നമ്മുടെ പത്രത്തെ സംബന്ധിച്ചെടുത്തോളം പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസവും പ്രാദേശിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എന്നുള്ളത് ഇവിടെ സ്വാഭാവികമായിട്ടും ഈ കേരള സംസ്ഥാനത്തിൽ രണ്ട് വകുപ്പുകളാൽ രണ്ട് മന്ത്രികളാൽത്തന്നെ ഭരിക്കപ്പെടുന്ന ഒന്നാണ് സാധാ വിദ്യാഭ്യാസത്തിനെയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഈ മന്ത്രിതല മീറ്റിങ്ങുകളും യോഗങ്ങളും ഒക്കെ നടക്കുകയും മന്ത്രിമാർ അതിന് അത് മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം തീർച്ചയായിട്ടും വിദ്യാഭ്യാസം അടുത്ത തലമുറയെ സംബന്ധിച്ചെടുത്തോളം വിദ്യാഭ്യാസം നൽകേണ്ടത് ഒരൂ ഒരു ഗവൺമെൻ്റുകൾ ഉണ്ടെങ്കിൽപോലും അതിൻ്റെ കുടുംബത്തിൽ നിന്നു തന്നെ അവനവൻ്റെ ഭവനങ്ങളിൽ നിന്നുതന്നെ അതിനുള്ള താൽപ്പര്യങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ചെലുത്തുന്നതിനാണ് വളർന്നു വരുന്ന നമ്മുടെ മക്കളെ സംമ്പന്ധിച്ചെടുത്തോളം അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം ഏതൊരു ഏതൊരു പേരൻസിൻ്റേയും ആ താല്പര്യമാണ് മക്കൾക്ക് വിദ്യാഭ്യാസം നല്കുക എന്നുള്ളത് അപ്പോൾ അവർ ഈ ക്രമീകരണങ്ങൾ എല്ലാം ഗവൺമെൻ്റ് തലത്തിലുള്ള ക്രമീകരണങ്ങൾ ധാരാളം ഉള്ള ഈ നാട്ടിൽ ധാരാളം ധാരാളം മാതാപിതാക്കൾ അവിടെ എല്ലാ കുട്ടികളെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ നമ്മുടെ സംസ്ഥാനത്ത് പൂർവ്വം പൂർവ്വമായിട്ട് എല്ലാ കുട്ടികളെയും എല്ലാ ഭവനങ്ങളിലെയും കുട്ടികളെയും വിദ്യാഭ്യാസം നൽകുന്നതിന് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വളരെയേറെ താൽപ്പര്യം കാണിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിദ്യാഭ്യാസത്തിലെ വിദ്യാഭ്യാസം നൽകുന്ന നൽകുന്ന ഈ ഈ കുടുംബത്തിലെ കുടുംബനാഥനോ കുടുംബനാഥയ്ക്കോ തീർച്ചയായിട്ടും ഈ പ്രാദേശിക പത്രങ്ങളിൽ വരുന്ന വാർത്തകളും വിദ്യാഭ്യാസത്തെക്കുറിച്ച് വരുന്ന വിദ്യാഭ്യാസത്തേയും കുറിച്ച് കുറിച്ച് വരുന്ന കാര്യങ്ങളും ഒക്കെ വളരെ നല്ല ഒരു നല്ലകാര്യമാണ് അതിൽനിന്ന് വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മക്കളെ നല്ലരീതിയിൽ അവരെ മുൻപോട്ട് പഠിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വളരെയേറെ ഈ പത്രങ്ങൾ പ്രയോജനപ്പെടും എന്നുള്ളത് വസ്തുതയാണ് ഇങ്ങനെ ഈ പത്രങ്ങളിൽക്കൂടി വരുന്ന വാർത്തകൾ അത് കുട്ടികളെത്തന്നെ പത്രം പത്രപാരായണം പഠിപ്പിക്കുന്നതും ഇതിനകത്തൊരു വളരെ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് എന്നു ഞാൻ വിശ്വസിക്കുന്നു കാരണം വളർന്ന് വരുന്ന മക്കളെ സംബന്ധിച്ചെടുത്തോളം ഇംഗ്ലീഷിലായാലും മലയാളത്തിൽ പോലുള്ള പത്രങ്ങൾ അതിലെ വാർത്തകൾ വായിക്കാനുള്ള ഒരു പരിശീലനം തന്നെ അവർക്ക് ചെറുപ്പത്തിലേത്തന്നെ കൊടുക്കേണ്ടതാണ് കുട്ടികളും പത്രങ്ങൾ വായിക്കുമ്പോൾ മാതാപിതാക്കളും പത്രങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായും ഈ പത്ര മാധ്യമത്തിൽക്കൂടി വരുന്ന വാർത്തകളെല്ലാം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കും എന്നുള്ളത് വസ്തുതയാണ് നമ്മുടെ എല്ലാ വീടുകളിൽ വളരുന്ന കുട്ടികൾ അവരെ സംബന്ധിച്ചെടുത്തോളം കുറവുകളുള്ള സംസ്ഥാനങ്ങളുണ്ട് കുറവുകളുള്ള രാജ്യങ്ങളുണ്ട് ഇവിടെ വിദ്യ അഭ്യസിക്കുന്ന മക്കളെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് തോന്നുന്നത് ഈ വാർത്താമാധ്യമങ്ങളിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം വിട്ട് രാജ്യം വിട്ട് വിദേശങ്ങളിൽ പോയി ധാരാളം കുട്ടികൾ ധാരാളം കുട്ടികൾ വിദ്യാഭ്യാസ പൂർത്തീകരണം നടത്തുന്നു എന്ന് ഉള്ളത് വളരെ വസ്തുതാപരമായൊരു കാര്യമാണ് ആ ഈ വാർത്താമാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ഇതിനുമുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ഇത്രയും ഇത്രയും കുട്ടികൾ വിദേശങ്ങളിൽ പോയി പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ വാർത്താമാധ്യമങ്ങളിൽക്കൂടി വരുന്ന വാർത്തകൾ പ്രത്യേകിച്ചും പത്രമാധ്യമങ്ങളും അതുപോലുള്ള മറ്റു മാധ്യമങ്ങളിലും എത്തുന്ന വാർത്തകളെ സംബന്ധിച്ച് വാർത്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളുടെ മാതാപിതാക്കളായാലും കുട്ടികൾ ആയാലും വളരെ താല്പര്യപൂർവ്വം വിദേശങ്ങളിൽ പോയി നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല ഉന്നതമായ ജോലി ജോലികൾ സമ്പാദിച്ച് നല്ല ഒരു കുടുംബമാകുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ഏറെ വസ്തുതയാണ് നിർത്തുന്നു